ഹായി ഹലോ അന്ന എന്തുണ്ട് വിശേഷം ഞാൻ ഒരു അമ്മയായതൊക്കെ അറിഞ്ഞ് കാണുമല്ലോ അല്ലേ ആ ഞാനതിൽ വളരെ ഹാപ്പിയാണ് ഇപ്പം ഒരുമാസം ആയി അപ്പം അതിൻ്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞു ഞാൻ റസ്റ്റും പൂർണമായും കഴിഞ്ഞില്ല എന്നാലും അതിൽനിന്നു കുറച്ചൊക്കെ റിക്കവറായി വന്നു പിന്നെ ഗേൾ ബേബിയാണ് നോർമലായിരുന്നു ഡെലിവറിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നു ചെറിയൊരു മഞ്ഞക്കളറൊക്കെയുണ്ടായിരുന്നു അതിൻറ്റേതായ ഒരു ഈ ലൈറ്റടിക്കുകയോ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊരു ബുദ്ധിമുട്ട് മാത്രമേയുള്ളായിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനി കുട്ടിക്ക് പാസ്സ്പോട്ടെടുക്കണം ഞങ്ങൾക്കങ്ങ് തിരിച്ചു പോവണ്ടേ അതുകൊണ്ട് പാസ്സ്പോർട്ടെടുക്കണം എന്റേതുമൊക്കെ ഒന്ന് അപ്റ്റ്ഡേറ്റ് ചെയ്യണം അങ്ങനൊക്കെയിരിക്കുന്നു പിന്നെ എന്തുണ്ട് വിശേഷം ഓഫീസിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയിരിക്കുന്നു സുഖമായിട്ടൊക്കെ പോകുന്നോ വർക്കൊക്കെ സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു പിന്നെ പുതിയൊരാൾ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഞങ്ങൾളുടെ ജീവിതമേ അങ്ങ് മാറിപ്പോയി വളരെ സന്തോഷമാണ് കുഞ്ഞുങ്ങളെന്നു പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണെന്നുള്ളത് ഇപ്പോൾ ജീവിതത്തിലനുഭവിച്ചപ്പോഴാ മനസിലാകുന്നത് കൊച്ചിൻ്റെ കളികളും പിന്നെ ഒരു അമ്മയായിയെന്നുള്ളത് അതിലേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഞാൻ എൻജോയ് ചെയ്യുന്നു പ്രസവത്തിന്റേതായ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞാൽ ബാക്കി കുഴപ്പമൊന്നുമില്ല പിന്നെ കുഞ്ഞിൻ്റെ പുതിയൊരാൾ നമ്മുടെ വീട്ടിൽ ഈ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റേതായ വളരെ ഏറെ വ്യത്യാസം നമ്മൾക്ക് കെയർ ചെയ്യുക അതായത് സമയം തികയുന്നില്ല കുഞ്ഞിൻ്റെ കാര്യം നോക്കണം അതിന് ശരിക്കും കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനം തന്നെയാണ് അപ്പം കുഞ്ഞിനെ നമ്മൾക്ക് താലോലിക്കാനും അതിൻ്റെയോരോ കളികൾ നോക്കിയിരിക്കാനും ഒക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ വീട്ടിലാണെങ്കിലും മറ്റ് സഹോദരങ്ങൾക്കുമൊക്കെ എൻ്റെ സഹോദരങ്ങൾക്കും ഇവിടെ അച്ചായൻ്റെ സഹോദരങ്ങൾക്കുമൊക്കെ വളരെ സന്തോഷം കാര്യം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്ന് ഉണ്ടായതായത് കാരണം എല്ലാവരും വളരെ സന്തോഷത്തിലാണ് മകൾ സുഖമായിട്ടൊക്കെയിരിക്കുന്നു പിന്നെ എൻ സുനിതയുടെ അന്നയുടെ കസിൻ്റെ ജൂവലിൻ്റെ കുട്ടി അത് ഡെലിവറി കഴിഞ്ഞോ എങ്ങനെയായിരുന്നു കുഴപ്പമൊന്നുമില്ല ഓഹ് ഞങ്ങളുടെ കൂടെ ഐ വി എഫ് ചെയ്തൊരു ആളുണ്ടായിരുന്നു അതിനിച്ചിരി കോംബ്ലിക്കേഷനായിരുന്നു പക്ഷേ ഇപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനും കണ്ടില്ല അതിനെപ്പറ്റി ഒന്നന്വേഷിച്ചില്ല ശരിക്കും അങ്ങനെയൊക്കെ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ നമുക്ക് കാര്യം അവരും കാത്തിരുന്ന് കാത്തിരിക്കുന്ന നമുക്കിപ്പം ഒരു പുതിയൊരതിഥി കുഞ്ഞും കൂടെ വന്ന് കഴിഞ്ഞപ്പോഴുള്ള നമ്മുടെ ആ ഈ സന്തോഷം നമ്മുടെ ജീവിതശൈലി തന്നെ മാറുന്ന അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് ഇപ്പോഴാ അനുഭവിച്ചപ്പോഴാ മനസിലായത് അപ്പം അവർക്കത് അങ്ങനെ ഒരു ഹാപ്പ് ഇത് സംഭവിച്ചെന്നാൽ നമുക്കതൊരു താങ്ങാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ശരി കുഞ്ഞുറങ്ങുന്ന സമയത്ത് ഞാനൊന്ന് വിളിച്ചെന്നേയുള്ളൂ സുഖമായിട്ടൊക്കെയിരിക്കുന്നു അന്നയും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു